ആ ചേച്ചി ഞാനിവിടെ പുതിയതായിട്ട് താമസത്തിനു വന്നത് ആയിരുന്നെ അപ്പോഴെ ഇവിടെ ഒന്നാമത്തെ കാര്യം എനിക്ക് ഇവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളും സ്ഥലങ്ങളും ഒന്നും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ടാണേ എന്റെ ആധാർ ഒന്ന് എൻറോൾ ചെയ്യണമായിരുന്നെ അപ്പോൾ അത് എൻറോൾമെൻ്റ് ചെയ്യാനുള്ള സെന്റര് എവിടെയാണെന്ന് വല്ലതും അറിയാമോ അടുത്തുള്ളത് ആ ടൗണിൽ ഒരെണ്ണം ഉണ്ടെന്ന് അറിഞ്ഞു പക്ഷേ എനിക്ക് അത്രയും ദൂരം പോകാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ എനിക്ക് ഉടനെ ചെയ്യണമായിരുന്നു പിന്നെ ടൗണിലോട്ട് ഞാനിപ്പോൾ അങ്ങനെ പോവുന്നില്ല അത് നല്ല ദൂരമല്ലേ ഇവിടെ അടുത്ത് വല്ലതും വല്ല എൻറോൾമെൻ്റ് ചെയ്യാൻ പറ്റിയ സെന്റര് വല്ലതും ഉണ്ടോ ആ എനിക്ക് പെട്ടെന്ന് ആ കാര്യം നടത്താനായിരുന്നു ആ സ്ഥലം എനിക്കറിയില്ല ഞാന് റൂട്ട് മാപ്പിട്ട് പൊയ്ക്കോളാം എവിടെ ആയിട്ട് വരും അത് ഓക്കെ ഓക്കെ ഓക്കെ ആ അപ്പോൾ അവിടെ ചെന്നിട്ട് ഓട്ടോയ്ക്ക് പോകാം അല്ലേ ആ ആ ആ ആ ആ ആ ശരിയേച്ചി താങ്ക് യൂ എനിക്ക് സ്ഥലങ്ങളൊന്നും ശരിക്കും അറിയാത്തതുകൊണ്ടായിരുന്നെ ഓക്കെ താങ്ക് യൂ